ഇപ്പോൾ മൃഗ സംരക്ഷണത്തിന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മൃഗമെന്ന് പറയാനായിട്ട് ഇപ്പോൾ എന്താ പറയാ എന്തേലും വ്യത്യസ്തമായിട്ട് എന്താ പറയാ പശുക്കൾ ചെമ്മരിയാടുകൾ ആട് കോഴി ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയാ വരുമാനത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പിന്നെ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ എന്താ പറയാ കോഴി കോഴിക്കുഞ്ഞുങ്ങളെ വെച്ച് കോഴി ഫാം തുടങ്ങുന്നേൽ തന്നെ അതിന്റേതായ നമുക്ക് ഒരു വരുമാനം കണ്ടെത്താൻ പറ്റും അതുപോലെത്തന്നെ പശുവിനെക്കൊണ്ടൊരു എന്താ പറയാ പശുവിൻ്റെ ഒരു തൊഴുത്ത് പശുക്കളുടെയൊരു കച്ചവടം തുടങ്ങുവാണേൽ തന്നെ അതിനും നമുക്ക് വരുമാനം ജീവിക്കാൻ ഒരു വരുമാനം നമുക്ക് അതിനകത്തുന്നു തന്നെ കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ കോഴികളെകൊണ്ടാണെങ്കിൽ തന്നെ എന്താ കോഴികളുടെ മുട്ട വിറ്റിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത്യാവശ്യം വരുമാനം ഉണ്ടാവും പിന്നെ കോഴി ഇറച്ചി പിന്നെ ആടാണെങ്കിൽ തന്നെ ആടുകളുടെ തോല് തോല് തോലും കൊണ്ട് പിന്നെ ആടിൻ്റെ ഇറച്ചി കൊണ്ടൊക്കെ തന്നെ എന്താ അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അതുപോലെത്തന്നെ ഓരോ ഫാമുകൾ ഫാമുകളൊക്കെ വെച്ചിട്ടുതന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ മൃഗം മൃഗങ്ങളെക്കൊണ്ടു തന്നെ നമുക്ക് എന്താ പറയാ കുറെ വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കോഴിയാണ് ഏറ്റോം ഇതെന്ന് തോന്നുന്നു കോഴിൻ്റെ ഫാമിൽ കോഴികളുടെ ഫാം തുടങ്ങുവാണേൽ തന്നെ അങ്ങനത്തെ നമുക്ക് കോഴികളെ വിറ്റാണേൽ നമുക്ക് കുറെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണെന്നാണ് അതാണ് കൂടുതലും മൃഗസംരക്ഷണത്തിൽ നമ്മൾ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്